എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കളിക്കുന്ന കളികളെന്ന് പറഞ്ഞാൽ എനിക്കേറ്റവുമിഷ്ടപ്പെട്ട കളി ക്രിക്കറ്റ് ഫുട്ബോള് വോളിബോള് എന്നിവയാണ് അതിലേറ്റവും കൂടുതൽ കളിക്കുന്നത് ഓഫ് കോഴ്സ് ക്രിക്കറ്റ് തന്നെയാണ് ആരോടൊപ്പമാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കൊരുപാട് സുഹൃത്തുക്കളുണ്ട് അവരോടൊപ്പമാണ് ഞാൻ ക്രിക്കറ്റ് കളിക്കാറ് ഞങ്ങൾക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഞങ്ങൾക്ക് സ്വന്തമായി ഗ്രൗണ്ടില്ലായിരുന്നു ഇപ്പോൾ ഞങ്ങളൊരു അടുത്തുള്ളൊരു പറമ്പിലാണ് കളിക്കുന്നത് ക്രിക്കറ്റ് കളി ജീവിതത്തിലേറ്റവും മനോഹരമായ ഒരു സന്ദർഭം തന്നെയാണ് കാരണം അവധി ദിവസങ്ങളും ഒട്ടുമിക്ക ദിവസങ്ങളിലെ വൈകുന്നേരങ്ങളുമെല്ലാം കൂടുതൽ മനോഹരമാക്കുന്നത് ക്രിക്കറ്റ് കളിയിലൂടെയാണ് ഒരുപാട് ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്നതും ക്രിക്കറ്റ് തന്നെയാണ് പണ്ട് ഓലമടലിൽ എം ആർ എഫിൻ്റെ ബാറ്റ് എം ആർ എഫെന്ന് എഴുതിയ ഓലമടലുപയോഗിച്ച് തുടങ്ങിയ കളിയാണ് അന്ന് സ്തംബറൊക്കെ ആയിരുന്നു ഇപ്പോൾ കാലം മാറിയതിനനുസരിച്ച് പിരിവിട്ട് നല്ല ബാറ്റ് മേടിക്കാൻ തുടങ്ങി അതോടൊപ്പം ഇപ്പോൾ കളിക്കുന്നത് സിന്തറ്റിക് ബോളുകളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ടം ക്രിക്കറ്റെന്നത് ഒരു വളരെ മനോഹരമായൊരു ഓർമ്മയാണ് കാരണം പാടത്തിൻ്റെ സൈഡിലാണ് കളിക്കുന്നത് വെള്ളം ഒരുപാട് കയറുന്നൊരു സ്ഥലമാണ് അതുകൊണ്ടുതന്നെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബോളടിച്ചു വെള്ളത്തിൽ ഇടുന്നവൻ ഔട്ടാണ് അവൻ അടിച്ച് കളയുന്നവൻ തന്നെ ബോളിറങ്ങിയെടുക്കണം അതുപോലെ വളരെ മനോഹരമായ കുറേയധികം ഓർമ്മകളാണ് തരുന്നത് പിന്നെ ഫുട്ബോളും അതുപോലെത്തന്നെ ഇഷ്ടപ്പെട്ടൊരു കളിയാണ് കാരണം ഈ ലോകത്ത് ഏറ്റവും കൂടുതലാളുകൾ കാണുന്ന ഒരു ഗെയിമെന്ന് പറയുന്നത് ഫുട്ബോള് തന്നെയാണ് അതുകൊണ്ടുതന്നെ നമ്മളും ഫുട്ബോളിനെ വളരെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ലയണൽ മെസ്സിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരൻ ഫുട്ബോളിൽ ക്രിക്കറ്റിലാണെങ്കിൽ വിരാട് കോലിയാണ് പണ്ട് സച്ചിനാണ് സച്ചിൻ തുടങ്ങിവച്ച ഒരു കാലത്ത് നിന്നും ഇപ്പോൾ വിരാട് കോലിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയറ് കാരണം ക്രിക്കറ്റ് ഇന്ത്യയിലൊരു മതമാണ് ആ മതത്തിൽ വളരെയധികം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെന്ന നിലയിൽ ഓഫ് കോഴ്സ് ആദ്യം സച്ചിൻ പിന്നെ ഇപ്പോൾ വിരാട് കോലി പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഗെയിമെന്ന് പറയുന്നത് വോളിബോളാണ് വോളിബോൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ അച്ഛനൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ഗെയിമാണ് വോളിബോൾ അതുകൊണ്ടുതന്നെ പാരമ്പര്യമായി എന്ന് പറയാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ഗെയിമാണ് കാരണം ഒരേപോലെ എത്രയധികം നമുക്ക് ഒരേ നിമിഷത്തിൽ തന്നെ വളരെയധികം എൻജോയ്മെൻറ്റ് തരുന്നൊരു ഗെയിമാണ് വോളിബോൾ അത് നമ്മളെ എപ്പോഴും ബോഡി ഫിറ്റാക്കി നിർത്തണം കാരണം അതുപോലെത്തന്നെ ഉയർന്ന സ്പൈക്സ് ചെയ്യാൻ വേണ്ടി പറ്റണം അതുപോലത്തന്നെ നമ്മുടെ ഹാൻഡ് പവർ നമ്മുടെ ഹൈറ്റ് എല്ലാം ഇതിന് പറ്റിയ ഫാക്റ്റേഴ്സാണ് അപ്പം ഇങ്ങനെയുള്ള ഈ മൂന്ന് കളികളാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് അതിൽ ആളുകൾക്ക് കളിക്കാനുള്ള സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞങ്ങൾക്ക് കളിക്കാനത്ര വലിയ സ്ഥലങ്ങളൊന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എല്ലാ പഞ്ചായത്തിനും ഒരു ഗ്രൗണ്ടെങ്കിലും വെച്ച് വേണമെന്ന് സർക്കാർ റൂളൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൻപുറങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഗ്രൗണ്ടുകൾ വളരെ കുറവാണ് പിന്നെ ഏതെങ്കിലും സ്വകാര്യവ്യക്തികളുടെ പറമ്പിലാണ് അതും അവരില്ലാത്ത സമയത്ത് കയറി കളിച്ചും അവരെ വരുമ്പോൾ വഴക്കു പറയും അവരെ കാണുമ്പോൾ ഓടി ഓടുക തുടങ്ങിയ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് അതിനുശേഷം കുറെ നാൾ ഞങ്ങൾ റോഡിൽ കളിച്ചു അതായത് വണ്ടി ഓടുന്ന റോഡിൽ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് കാരണം അതൊക്കെ വളരെ റിസ്കിയാണ് പക്ഷേ കളിയോടുള്ള ഒരാവേശം കാരണം നമ്മളങ്ങനെ ചെയ്തിരുന്നു ഇപ്പോൾ നിലവിൽ നമുക്കൊരു സ്വകാര്യവ്യക്തിയുടെ പറമ്പുണ്ട് അവരവിടുന്ന് താമസം മാറി പോയതുകൊണ്ടാണ് എങ്കിലും കുട്ടികളവിടെ കളിക്കുന്നത് പൊതുവെ നാട്ടുകാർക്ക് പലർക്കും ഇഷ്ടമൊന്നുമല്ല എങ്കിലും ഇപ്പോഴും നമ്മൾ അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്